പത്ത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏഴ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എണ്പത്തി രണ്ട് പന്ത്രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് നാല് ആറ് രണ്ടായിരത്തി പതിനഞ്ച്